ഹലോ ഹലോ അതെയതെയതെ പറഞ്ഞോളു ആരാണ് ആരാണ് വിളിക്കുന്നത്

ആ മൊബൈൽ ആകുമ്പോൾ എങ്ങനത്തെ നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ പോക്കോ എക്സ് ത്രീ ആ അതാണോ ഓ എക്സ് ത്രീ ഫോർ നിലവിൽ അങ്ങനെ സ്റ്റോക്കില്ല അത് കഴിഞ്ഞാഴ്ച്ചയോടെ തന്നെ ഈ അതിൻ്റെ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കായിപ്പോയി എൻ്റെ ഒരു കുഴപ്പമില്ല ഞങ്ങൾ വേണമെങ്കിൽ മറ്റേതേലും ഫോൺ ബ്രാൻഡ് വല്ലതും നോക്കുന്നുണ്ടോ അത് തന്നെ വേണമെന്ന് വല്ലതും ഉണ്ടോ ആ അങ്ങനെ ചോദിച്ചാൽ മറ്റെല്ലാവിധ ഫോൺസ് ഫോൺ ബ്രാൻഡും ഉണ്ട് സാംസങ് സാ സാംസങ് മറ്റേ റെഡ്മി അതുപോലത്തെ എല്ലാ ഫോണും ഫാൻസി ബ്രാൻഡും ഉണ്ട് ഏയ് അപ്പോൾ അത് അല്ലാതെ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ യൂസ് അനുസരിച്ചിരിക്കും ചിലപ്പോൾ ചാർജും മറ്റേകാര്യ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് അതൊക്കെ പെർസൺ ടു പെർസൺ ഇപ്പോൾ നമ്മൾ ഫോൺ ഈ എന്താ യൂസ് അത് അനുസരിച്ചിരിക്കും മ്മ് ഡെയ്ലി യൂസിന് ആയിരിക്കുമ്പോൾ സാംസങ് പെർഫെക്ട് ആയിരിക്കും ആ ഞാൻ പറ ഞാൻ പറഞ്ഞില്ലെ ഇപ്പോൾ നെലവിൽ പോക്കോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പിന്നെ എത്ര അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ സാധനം വരുത്താം കുഴപ്പമില്ല

മിക്കവരുടെയും ഫോണും ഇപ്പം ഇറങ്ങുന്ന മിക്ക എല്ലാ ഫോണും ഫൈ ജി ടെക്നോ ഫൈ ജി സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ആ മിക്ക എല്ലാ ഫോണും സാംസങ് റെഡ്മി എല്ലാ എല്ലാ എല്ലാ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ

ആ മനസ്സിലായി മനസ്സിലായി അതിപ്പോൾ ഓരോത്തർക്കോരോ പേർസണൽ ഓരോരോ ബ്രാൻഡിനോരോന്ന് കാണുമല്ലോ ഞാൻ ജസ്റ്റ് ഒരു ഓൾട്ടർനേറ്റീവ് ചോയ്സ് ജസ്റ്റ് പറഞ്ഞന്നേയുള്ളു പക്ഷെ നിലവിൽ പൊക്കോ ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലില്ല ഒരു പക്ഷെ വേണമെങ്കിൽ സാധനം വേഗം വരുത്താം ആ ഒരു

മ്മ് മ്മ് സാധനം വരും ആ ഈ എത്രയാണ് ഉദ്ദേശിക്കുന്നത്

ആ അതെ ഒരൂ രണ്ട്മൂന്ന് രണ്ട് മൂന്ന് ദിവസം എങ്ങനെ എങ്ങനെ ആയാലും പിടിക്കും അതിൽ കൂടുതൽ താമസിക്കുവാണെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാം ആ ഓക്കെ